കോഴിക്കോട് ജില്ലയിലെ ശ്രദ്ധേയമായ ലാൻഡ് മാർക്കുകളും ചരിത്രപരമായ സ്ഥ സ്ഥലങ്ങളുമാണ് ശ്രീകണ്ടേശ്വരാ ക്ഷേത്രവും കാപ്പാട് ബീച്ചുമൊക്കെ അതുപോലെയുള്ള അതുപോലെ കോഴിക്കോടിലെ പ്രധാനപ്പെട്ട എല്ലാവരും അറിയപ്പെടുന്നൊരു ഹോട്ടലാണ് റഹമത്ത് ഹോട്ടൽ അതുപോലെ റഹമത്ത് റെസ്റ്റോറന്റ് ഇവിടെയുള്ള ബിരിയാണി ബീഫ് ബിരിയാണി ഒരു പ്രത്യേക എല്ലാവരും എല്ലാ ജില്ലയിൽ എല്ലാ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്നൊരു ബിരിയാണിയാണ് റഹമത്ത് ഹോട്ടൽ നിന്ന് അത് കഴിക്കാനായിട്ടും ഒരുപാടാൾക്കാർ കോഴിക്കോട് ജില്ലയിൽ എത്താറുണ്ട് അതുപോലെ തന്നെ കാപ്പാട് ബീച്ച് ആദ്യമൊക്കെ ബീച്ച് പോലെ എല്ലാവരും വന്ന് വരികയാണെങ്കിൽ ഇപ്പം അത് കുറച്ചും കൂടി പുതുക്കി ഒരുപാട് ഫെസിലിറ്റി ഒരുപാട് കാര്യങ്ങളവിടെ പുതുതായി വന്നിട്ടുണ്ട് അവിടെ കാപ്പാട് ബീച്ചിലുള്ള ഒരുപാട് ഉപ്പിലിട്ട ഉപ്പിലിട്ട നെല്ലിക്കാ മാങ്ങാ പൈനാപ്പിൾ അതുപോലെ പിന്നെ ഐസ് ഒരുപാട് കളറുകളിലുള്ള ഐസ് അതൊക്കെ അവിടെ അറിയപ്പെടുന്നൊരു ഫു ഒരു ബീച്ചയിറ്റംസാണ് പിന്നതുപോലെ ബീച്ച് കാണാനും ബീച്ചിൽ വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാനൊക്കെ ഒരുപാടാൾക്കാരവിടെ ബീച്ച് സൈഡിലൊക്കെ എത്തിപ്പെടാറുണ്ട് അതുപോലെ എം ജി റോഡ് കോഴിക്കോട് എം ജി റോഡ് അറിയപ്പെടുന്നൊരു സ്ഥലമാണ്